പാചകമൊരു വ്യവസായ മാർഗ്ഗമാക്കി മാറ്റണം എന്ന് ഞാൻ ആലോചിച്ചിട്ടുള്ളതും അച്ചാറുകൾ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ഒരു പാട് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നൊരു സംഭവം എന്ന് വച്ചാൽ അച്ചാറുകളാണ് മാങ്ങാച്ചാർ നാരങ്ങാച്ചാർ പലതരം മീനച്ചാറുകൾ കാരണം എന്ന് വച്ചാൽ സീസണായിട്ട് ഉണ്ടാവുമ്പോൾ ഒരു പാട് മാങ്ങ സീസണിൽ ഒരു പാട് മാങ്ങ കിട്ടും അപ്പം നമ്മൾക്ക് അതച്ചാറിട്ട് വച്ചാൽ കൂടുതൽ കാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതു പോലെ തന്നെ മീനിൻ്റെ കാര്യത്തിലാണെങ്കിലും മത്തി കഷ്ണം മീനുകളൊക്കെ നമുക്ക് അച്ചാറിട്ട് വച്ചാൽ കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അച്ചാർ ഉണ ക്കുന്നതിനെ പറ്റി അച്ചാർ ഉണ്ടാക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായത് കൊണ്ട് തന്നെ ഞാൻ അതൊരു ബിസ്നെസ്സാക്കി മാറ്റണം എന്ന് എനക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഭർത്താവും അമ്മയും എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടു ആണ് കാരണം എന്ന് വച്ചാൽ അച്ചാറിൻ്റെ കാര്യത്തിൽ ആകുമ്പം നമുക്ക് ചിലവ് വളരെ കുറഞ്ഞിട്ട് ഒരു ബിസിനെസ്സ് തുടങ്ങാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ് അതു പോലെ തന്നെ എല്ലാ വീടുകളിലും സാധാരണ ഉണ്ടാകുമ്പോൾ എല്ലാ വീട്ടിലുണ്ടാകുന്നൊരു സൈഡ് ഡിഷ് ആണ് അച്ചാറുകൾ അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് വിൽക്കാൻ വേണ്ടിയും പറ്റും അപ്പോൾ ഒരു അച്ചാർ ഒരു ബിസിനസ് ആക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നിയത് എൻ്റെ ഒരു താൽപ്പര്യം കൊണ്ടിട്ടും പിന്നെ കുടുംബവും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അച്ചാർ ഒരു ബിസിനസ് ആക്കി കൊള്ളാമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട്